ഹലോ ഞാൻ ഞാന് ആമസോണില്നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടി വി അപ്പോള് അത് എവിടായെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോള് വിളിച്ചത് അപ്പോള് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഡീറ്റെയിൽസൊക്കെ ഒന്നയച്ചുതരാൻ പറ്റുമോ ഇപ്പോള് അവിടെനിന്ന് ഷിപ്പായിട്ടുണ്ടോ അപ്പോള് എന്നാണ് ഡെലിവറി ആകുന്നതെന്നൊന്നു പറയാവോ അതുവല്ല ഇതിനിപ്പോള് ഡെലിവറി ചാർജ് വല്ലതും കൊടുക്കണോ എനിക്കാ നിങ്ങളുടെ ഇതൊന്ന് അയച്ചുതരാമോ ആ ട്രാക്കിംഗ് ഐ ഡി ഒന്നയച്ചുതരാമോ